ഒരു പ്രദേശത്തെ കുറ്റകൃത്യങ്ങളും അപകടങ്ങളും തടയുന്നതിന് പോലീസിന് ഒരു പ്രധാന പങ്ക് തന്നെയുണ്ട് കാരണം എൻ്റെ പ്രദേശത്ത് കുറച്ച് അടുത്ത് തന്നെ ആയിട്ടാണ് പോലീസ് സ്റ്റേഷൻ ഉള്ളത് അപ്പോൾ എൻ്റെ പ്രദേശത്ത് എന്തെങ്കിലും മറ്റ് പ്രശ്നങ്ങളോ അപകടങ്ങളോ കുറ്റകൃത്യങ്ങളോ സംഭവിക്കുകയാണെങ്കിൽ പോലീസിൻ്റെ ഇടപെടൽ കൂടുതലായി ലഭിക്കുന്ന ഒരു സ്ഥലമാണ് അങ്ങനെ സാധാരണക്കാരന് വേണ്ട സംരക്ഷണവും മറ്റു കാര്യങ്ങളും എല്ലാം ഉറപ്പാക്കുന്ന പോലീസ് തന്നെയാണ് ഇവിടെയുള്ളത് നമ്മുടെ എന്താവശ്യത്തിനും വരുന്ന പോലീസാണ് ഉള്ളത് അങ്ങനെ നമുക്ക് കുറച്ചു കൂടി സുരക്ഷിതമായി നമുക്ക് കഴിയാവുന്ന ഒരു സ്ഥലമാണ് അപ്പോൾ ആർക്കും ഒരു പേടിയും ഇല്ല